ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സമൂഹത്തിലെ പരമ്പരാഗത നൃത്തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക കഥകളോ ഐതീഹ്യങ്ങളോ ഉണ്ടോ എന്നതാണ് അതായത് കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള സമൂഹത്തിലെല്ലാം നൃത്തം അല്ലെങ്കിൽ കലാ രൂപമാണ് നൃത്തം ഡാൻസ് ഫോം അതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കഥകളോ ഐതീഹ്യങ്ങളോ ഉണ്ടോ എന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കേരളത്തിലുള്ള ചില നൃത്തരൂപങ്ങളെ പറ്റി പറയാം ഏതൊക്കെയാണ് നൃത്ത രൂപങ്ങൾ നൃത്ത രൂപങ്ങളെന്ന് ഞാനിപ്പോൾ വിവരിക്കാം ആദ്യമായി തന്നെ ഏറ്റവും പ്രശസ്തമായ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ നൃത്ത രൂപമാണ് കഥകളി എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് കഥകളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പല സ്വർണത്തിൻ്റെയും ആഭരണങ്ങൾ ആഭരണങ്ങളും പിന്നെ മുഖത്ത് ചായം പൂശിയിട്ടൊക്കെയാണ് പച്ച ചായമൊക്കെ പൂശിയിട്ടാണ് കഥകളി എന്നുള്ള നൃത്ത രൂപം അരങ്ങേറുന്നത് കഥകളി എന്ന ഈ ഒരു പ്രത്യേക നൃത്ത രൂപം കാണാനായിട്ട് പുറത്ത് നിന്ന് കുറേ പല രാജ്യത്ത് നിന്നും ആൾക്കാർ കേരളം കേരളത്തിലേക്ക് വരാറൂണ്ട് അപ്പം അങ്ങനെ പ്രശസ്തമായൊരു കലാരൂപമാണ് കഥകളി പിന്നെ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു നൃത്ത രൂപമുണ്ട് സ്ത്രീകളാണ് ഈ ഒരു നൃത്ത രൂപത്തിൽ അരങ്ങേറുക സ്റ്റേജിൽ അല്ലെങ്കിൽ വേദിയിൽ അരങ്ങേരാറ് വെള്ള വസ്ത്രത്തിൽ ഒരു സ്വർണ്ണ കരയുള്ള ഉള്ള ഒരു വസ്ത്രമായിരിക്കും ഇവർ ധരിക്കുക പിന്നീട് തല തലയിലെ മുടി മുല്ലപ്പൂ വച്ച് കെട്ടി മുഖത്ത് ചായം പൂശി കണ്ണെഴുതി പൊട്ടക്കെ തൊട്ട് പിന്നെ ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് ഈ ഒരു നൃത്തം വേദിയിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള കലോത്സവത്തിലൊക്കെ ഈ ഒരു നൃത്ത രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് അടുത്ത നൃത്ത രൂപം എന്ന് പറയുന്നത് ഭാരത നാട്യമാണ് ഭരതനാട്യം കളിക്കുമ്പോൾ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് പല നിറത്തിലുള്ള മോഹിനിയാട്ടത്തിൽ വച്ച് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഭരതനാട്യം എന്നുള്ളൊരു കലാ രൂപത്തിൽ നൃത്ത രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് ഭരതനാട്യം കളിക്കുന്ന കുട്ടികളുടെ വസ്ത്രം പിന്നീട് വേറെ ഒരു നൃത്തരൂപമെന്ന് പറയുന്നത് കുച്ചുപ്പുടിയാണ് അത് നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ രണ്ട് കാലുകൾ വച്ച് ബാലൻസാണ് ഈ ഒരു നൃത്ത രൂപത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ പിന്നീട് വേറെ ഒരു ഡാൻസ് ഫോമാണ് കഥക് അത് കേരളത്തിൽ അത്ര പ്രശസ്തമല്ല പിന്നീട് വേറെ നാടൻ നൃത്ത രൂപങ്ങളാണ് ഓട്ടൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ പിന്നെ കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു നൃത്ത രൂപം ചാക്യാർ കൂത്ത് പിന്നെ തെയ്യം പടയണി പിന്നെ കളരിപ്പയറ്റ് എന്ന് പറയുന്നതൊരു മാർഷ്യൽ ആട്ട് പോലത്തെ ഒരു നൃത്ത രൂപമാണ് ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരും പങ്കെടുക്കാറുണ്ട് പിന്നീട് ഗ്രൂപ്പായിട്ട് അതായത് ഒറ്റക്ക് നൃത്തം ചെയ്യാതെ ഗ്രൂപ്പായിട്ട് അതായത് പലരും കൂടി നൃത്തം ചെയ്യുന്ന ചില നൃത്ത രൂപങ്ങളെന്ന് പറയുന്നത് മാർഗ്ഗം കളിയാണ് ഇത് കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹം അല്ലങ്കിൽ നസ്രാണികളാണ് ഈ ഒരു നൃത്ത രൂപം ചെയ്യാറ് ചട്ടയും മുണ്ടും എന്ന പറയുന്ന വസ്ത്രമാണ് ഇവർ ധരിക്കുക ഈ ഒരു വസ്ത്രം ധരിച്ച് മാർത്തോമാശ്ലീഹായുടെ ജീവതം കുറിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി പറയുന്ന ഒരു പാട്ട് പാടിയിട്ടാണ് ഇവർ നൃത്തം ചെയ്യുന്നത് വട്ടത്തിലാണ് ഈ ഒരു എല്ലാവരും വട്ടത്തിൽ നിന്നാണ് ഈ ഒരു നൃത്തം കളിക്കാറ് പിന്നെ അടുത്ത ഒരു നൃത്തം എന്ന് പറയുന്നത് തിരുവാതിരക്കളിയാണ് അത് ഹിന്ദു ഹിന്ദുക്കളാണ് കൂടുതൽ ഈ നൃത്തം കളിക്കുന്നത് കാണുന്നത് സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടിയിട്ടാണ് സ്ത്രീകളാണ് കൂടുതൽ ഈ ഒരു നൃത്ത രൂപം ചെയ്യുന്നത് പിന്നീട് കേരളത്തിൽ തന്നെ ഇസ്ലാം മതത്തിൽ പെട്ടവർ കളിക്കുന്ന ഒരു നൃത്ത രൂപമാണ് ഒപ്പന കല്യാണം കഴിക്കാൻ പോകുന്ന പെൺ കുട്ടിയെ ഒരു കസേരയിൽ ഇരുത്തി അവൾക്ക് വേണ്ടി പാട്ട് പാടുന്ന അവളുടെ കൂട്ടുകാരികൾ നല്ല വസ്ത്രം ഒക്കെ ധരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കല്യാണത്തിന് ഒരുക്കുന്ന കുട്ടികളെ നമുക്ക് ഈ ഒരു നൃത്ത രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ കേരളത്തിലെ വേറെ ഒരു നൃത്ത രൂപമാണ് കേരള നടനം പിന്നെ ഓണത്തിന് പ്രത്യേകമായി കാണാൻ പറ്റുന്ന ഒരു നൃത്ത രൂപമാണ് പുലിക്കളി അതായത് കുറച്ച് ശരീര ഭാരം അല്ലെങ്കിൽ തടിയുള്ള ആൾക്കാർ ശരീരം ഒരു പുലിയുടെ രൂപത്തിൽ ചായം പൂശി നൃത്തം ചെയ്യുന്നതിനെയാണ് നമ്മൾ പുലിക്കളി എന്ന് പറയുന്നത് ഈ പുലികളെ വേട്ടയാടാനായിട്ട് ഒരു വേടൻ വേടനും വസ്ത്രമണിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും ഓണത്തിനാണ് നമുക്ക് നമ്മൾ കൂടുതൽ പുലിക്കളി പുലിക്കളി നമുക്ക് കേരളത്തിൽ കാണുവാനായിട്ട് സാധിക്കുക പിന്നെ തൃശ്ശൂർ പൂരത്തിനൊക്കെ നമുക്ക് പുലിക്കളി കാണാനായിട്ട് സാധിക്കും പിന്നെ കൃഷ്ണനാട്ടം ഓണക്കളി തുമ്പി തുള്ളൽ എന്ന് പറയുന്ന വേറെ നൃത്ത രൂപങ്ങളും കേരളത്തിലുണ്ട്